ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഇപ്പം ഞാൻ സമൂഹ മാധ്യമത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ അക്കൗണ്ട് ആണ് ലാപ്പിഡോസ് ഫ്രെയിംസ് എന്ന് പറയുന്നത് അത് എന്ന് പറയുന്ന അവരുടെ ഓരോ ഫോട്ടോസ് കാണുമ്പം അത് റിയൽ ആ റിയൽ ആയിട്ട് നമുക്ക് ഒരുപാട് ഭംഗിയാണ് അത് കാണാൻ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ വെഡ്ഡിങ്ങ് വെഡ്ഡിങ്ങിനായിക്കോട്ടെ എല്ലാ കാര്യത്തിനും ആ ഒരു ലാപ്പിഡോസ് ഫ്രെയിംസ് എന്ന് പറയുന്ന ഈ ഫോട്ടോഗ്രാഫറെയാണ് എല്ലാവരും കൂടുതൽ ആൾക്കാരും വിളിക്കുന്നതും അവരെ ആണ് കോൺടാക്ട് ചെയ്യുന്നതും ഇപ്പോൾ അവരുടെ ഒരു അവർ കൊടുക്കുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് വലിയ ഒരു അവരുടെ നൂറു ശതമാനം പുലർത്തിയ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ആണ് അത് ഇപ്പോൾ ഒരു ബിറ്റും ഈ ഓരോ ഫോട്ടോസിനും ഓരോ തലമെടുത്ത് നോക്കിയാലും അവർ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഫോട്ടോയിൽ പകർത്തി അതും നല്ല നല്ല ഒരു ഭംഗിയുള്ള രീതിയിലാണ് അവർ ഫോട്ടോസ് എടുക്കുന്നതും അത് ആൽബം പോലെ ആക്കുന്നതും അവരുടെ ഓരോ വീഡിയോസും ഫോട്ടോ എഡിറ്റ് ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് തോന്നും അത്രയ്ക്ക് ഭംഗിയാണ് ഇത് ഈ ലാപ്പിഡോസ് ഫ്രെയിംസ് അതാണ് അവരുടെ അക്കൗണ്ട് നെയിം